ജോലിയ്ക്ക് പുറമെ എൻ്റെ ഹോബിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റ് കളി കളിക്കാൻ ഇഷ്ടമാണ് ഞാനിവിടെ പിള്ളേരുടെ കൂടെ കളിക്കാറുണ്ട് പിന്നെ താഴെ നമ്മളെ ഗ്രൗണ്ട് ഉണ്ട് പുഴേന്റെ സൈഡിൽ അവിടെപ്പോയിട്ട് കളിക്കാറുണ്ട് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും മഴക്കാലത്ത് ഫുട്ബാൾ ആണ് കൂടുതലും കളിക്കാറ് നല്ല രസമാണ് കളിക്കാൻ വെള്ളത്തിലൊക്കെ ചാടി തെന്നി വീണ് അങ്ങനെ കളിയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ക്രിക്കറ്റ് കളി കാണാൻ ഇഷ്ടമാണ് അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വരുമ്പോൾ ഉള്ള കളികളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ എന്താ പറയുക ഞാൻ ആ ക്രിക്കറ്റ് കളി കാണും പിന്നെ ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വരയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരയ്ക്കും അപ്പം എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡ്രൈവിംഗ് ആണ് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു ട്രാവല് ചെയ്യാൻ ഡ്രൈവിംഗ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാൻ ആ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിൻ ആയിട്ട് കളിയ്ക്കാനാണ് കുറച്ച്കൂടി താല്പര്യം കളി കാണാനും കളിക്കാനും അങ്ങനെയാണ് താല്പര്യം ഫുഡ്ബോള് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഐ എസ് എൽ നടക്കുന്നുണ്ട് ഐ എസ് എല്ലിൻ്റെ കളി കാണും ക്രിക്കറ്റ് കളി കാണും ഐ പി എൽ നടക്കുന്നുണ്ടായിരുന്നു ഐ പി എൽ കാണും അങ്ങനെ പല കളികളും ഞാൻ കാണാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ് എന്നു പറഞ്ഞാൽ